ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈദ്യുതീ മുടക്കം പല സമയങ്ങളിലും ഉണ്ട് ഈ സമയം ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വൈദ്യുതി മുടക്കം വന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമുക്ക് ഫാൻ ഉപയോഗിക്കാനോ അല്ല എ സി ഉപയോഗിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വൈദ്യുതി ചില സമയങ്ങളിൽ ഇല്ലാതെ വരുന്നുണ്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറില് നമ്മുടെ ഇവിടെ ഒരു രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ ചില ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതെ വരുന്നുണ്ട് അപ്പോൾ വൈദ്യുതി മുറകുന്ന നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ മറ്റേ കൃഷി മറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വൈദ്യുതി മുടക്കം വന്ന് കഴിയുമ്പോൾ അത് വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിയിൽ വൈദ്യുതി മുടക്കത്തിന് കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പല കാരണങ്ങളാണ് പറയുന്നത് ഇപ്പോഴാണ് അവർ ലൈനുള്ള ടച്ചുകൾ വെട്ടുന്നത് മറ്റ് തടസ്സങ്ങൾ മാറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് വൈദ്യുതി തടസം ഉണ്ടാകുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് മുടക്കം അത് മുടക്കം കൂടാതെ വൈദ്യതി ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അത് ഒരിക്കലും അത് സാധിക്കില്ല അങ്ങനെ മുടക്കം കൂടാതെ വൈദ്യതി കിട്ടുന്ന ഒരു കാലത്തെ പറ്റി നമുക്ക് ഇപ്പോൾ നിലവിൽ ചിന്തിക്കാൻ പോലും പറ്റികേലാ മഴക്കാലമായിക്കഴിഞ്ഞാൽ മരങ്ങൾ വീണും ഒടിഞ്ഞും വൈദ്യതി മുടങ്ങുന്നു ഈ സമയങ്ങളിൽ അവർ ലൈനിലെ ടച്ചുകൾ വെട്ടുന്നു എന്ന് പറഞ്ഞ് വൈദ്യുതി മുടക്കം വരുന്നു എന്താണെങ്കിലും നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറ് വൈദ്യുതി അവർ ഒരിക്കലും തരുന്നില്ല അപ്പോൾ അതൊരു നമ്മളെ സംബന്ധിടത്തോളം നമ്മുടെ ജീവിതത്തെ വളരെയധികം വൈദ്യുതി മുടക്കം ബാധിക്കുന്നുണ്ട്